ഹലോ ഒരു പതിനഞ്ചായിരം ലിറ്ററിൻ്റ ഒരു ടാങ്ക് പണിയാൻ ആണ് നമുക്ക് അതിൽ എന്തൊക്കെ നമുക്ക് വേണ്ടത് വെച്ചാൽ താഴെക്കൂടി ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റ ചളിയും കാര്യങ്ങളൊക്ക താഴക്കൂടി പോകണ രീതിയിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ താഴത്തേക്ക് എല്ലാ വേസ്റ്റും വന്ന് അടിയണം ഓപ്പണിങ്ങ് കൊടുക്കണം അതിൽക്കൂടി ചെളി എല്ലാം പോകണ പോലെയാണ് നമുക്ക് വേണ്ടത്

നമുക്ക് സെപ്പറേറ്റ് പില്ലർ ഇട്ട് വേണം കാരണം കുറച്ച് വെയ്റ്റ് ഉള്ളതാണ് അപ്പോൾ നമുക്ക് വീടിന്റെ മുകളിൽ ആണ് ഉണ്ടാക്കേണ്ടത് പില്ലറും കാര്യങ്ങളൊക്കെ അപ്പോൾ മുകളില് ഏകദേശം അതിന് ഉള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട് നമുക്ക് അപ്പോൾ പണിയണം അപ്പോൾ അതിന് ഉള്ള കാര്യങ്ങൾ നോക്കണം ഏകദേശം എത്ര വരും എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് ആ ഓക്കെ നമുക്ക് എട്ട് പത്ത് ഒന്നും പറ്റില്ല അതിന്റെ ഉള്ളില് നമുക്ക് വേണം നമുക്ക് ഒര് അഞ്ച് ദിവസത്തില് വേണം അപ്പോൾ ഒന്ന് സ്പീഡ് ആക്കണം നമുക്ക് വർക്കറിന്റെ വർക്കേർസിന്റെ എണ്ണം കൂട്ടിയാലും കുഴപ്പം ഇല്ല നമുക്ക് ഒന്ന് പെട്ടെന്ന് പണി നടക്കണം അതൊക്കെ ഞങ്ങള് അത് എല്ലാം ഞങ്ങള് ഇറക്കിത്തരാം നിങ്ങൾ എത്രയാണ് വേണ്ടതെന്നു വെച്ചാൽ പറഞ്ഞാൽ അതിന് ശേഷം ഞങ്ങൾ എറക്കിത്തരാം ആ ഓക്കെ അപ്പോൾ അത് എറക്കിത്തരാൻ പറ്റും ആ ശരി നിങ്ങൾ പറയുന്നപോലെ മതി നമുക്ക് കുഴപ്പമില്ല നമുക്ക് എല്ലാം അത് ചെയ്തുതരാൻ പറ്റും നമുക്ക് മറ്റെ വർക്കിൽ പെർഫെക്ഷൻ ഉണ്ടാവണം കുറച്ച് കാലങ്ങൾ വരെ നിൽക്കണപോലെ ആയിരിക്കണം അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എറക്കിത്തരാൻ പറ്റും കുഴപ്പമില്ല ആ ചെയ്യാം നമുക്ക് വീട്ടിൻ്റ മുകളിൽ ഷീറ്റ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് വെള്ളം വെരാം അത് ഒരു പൈപ്പ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അതിലേക്ക് വരുന്ന പോലെ ആക്കാം ഒന്ന് വാർക്കണം ആ പക്ഷെ ആൾക്ക് ഇറങ്ങി ക്ലീൻ ചെയ്യാൻ ഉള്ള അതും ഗ്യാപ്പും കൊടുക്കണം ആ ഓക്കെ അപ്പോൾ ഏകദേശം എത്ര വരും ആ ഓക്കെ ആ ശരി നിങ്ങൾ ആ അഡ്രസ്സും കാര്യങ്ങളും ഞാൻ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എത്രയും പെട്ടെന്ന് വരാൻ പറ്റണ രീതിയിലേക്ക് ബാക്കി ആൾക്കാരെയും കൂട്ടി വരണം

ഞാൻ ഞാൻ ഞാൻ വരാം ഞാൻ വരാം വന്ന് എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് വേണ്ടത് വെച്ചാൽ കൊണ്ട് വന്നാൽ നമുക്ക് വേഗം പണി തുടങ്ങാൻ പറ്റും ആ ശരി ശരി ശരി ആ ശരി ഓക്കെ ശരി എന്നാൽ